ഹിന്ദു മതമായി ബന്ധപ്പെട്ട് ഇതിഹാസ ഗ്രന്ഥങ്ങളും സമകാലീനമായ പാട്ടുകളും ധാരാളം ഉൽഭവിച്ചിട്ടുണ്ട് സു രാമ രാമായണം മഹാഭാരതം പാ അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു എന്ന് പറയുന്ന ഭഗവത്ഗീത ഇതെല്ലാം നമ് പ്രധാനപ്പെട്ടതാണ് പാട്ടുകളുടെ ഇടയിൽ കവിതകളുമായി ധാരാളം ഉണ്ട് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളെ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ശ്രീമത് നാരായണീയം എന്നുള്ള പുസ്തകമാണ് കാരണം അതിനകത്ത് നമ്മൾ ഭഗവാനെ അങ്ങോട്ട് പ് പ് പിന്നെ കീർത്തി പ്രകീർത്തിക്കുകയാണ് ന്ന് ഒരു അത് മാത്രമല്ല ഒരു കാവ്യരചന കൊണ്ട് രോഗം മാറ്റിയെടുക്കാനുള്ള ഒരു ഗ്രന്ഥം കൂടിയാണിത് അതായത് ഭട്ടതിരിപ്പാടിന് ഉണ്ടായ വാതരോഗം മാറ്റിയെടുക്കുന്നതിന് നാരയണ ഭട്ടതിരി ഗുരുവായൂർ സന്നിധാനത്തിൽ ചെന്നിരുന്ന് നാരായണീയം എഴുതി തീർന്ന ആ ദിവസം അദ്ദേഹത്തിന് വാതരോഗങ്ങൾ എല്ലാം അകന്നു എന്നുള്ള നമ്മുടെ പത്ത് നാനൂറ് നാനൂറ്റമ്പത് കൊല്ലത്തിൻ്റെ അകത്തുള്ള ഒരു സംഭവമാണിത് അതുകൊണ്ട് അങ്ങനെ കവിത ഒരു ഔഷധമായി നമ്മൾ ഉപയോഗിക്കാം എന്നുള്ള ത തെളിഞ്ഞിട്ടുള്ള ഒന്നാണ് നാരയണ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണീയം